എനിക്ക് പൊതുവെ ഇഷ്ട്ടപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ മാത്സ് ആയിരുന്നു കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൻ്റെ വിഷയങ്ങൾ മാത്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ അതിനുത്തരം അതിലുണ്ടാകും എല്ലാവർക്കും ഇപ്പമത് കറക്റ്റായേക്കാം എന്നാൽ ചിലപ്പമത് ചെറിയ പ്രശ്നമുണ്ടാകും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട വിഷയം മാത്സായിരുന്നു എനിക്ക് പ്ലസ് വൺന് കയറിയപ്പം പ്ലസ് ടുക്കെ അത്യാവശ്യം മാത്സ് ഇഷ്ട്ടപ്പെട്ട അതുകൊണ്ട് എനിക്ക് പ്ലസ് ടു നല്ല മാർക്കൊണ്ട് മനസ്സിലായോ എനിക്കെപ്പോഴും മാത്സ് ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിലെ ഒമ്പതാം ക്ലാസ്സിലെക്കെ എനിക്ക് ഞാൻ എനിക്കിപ്പറിയാന്നെങ്കിൽ ഞാൻ എസ് എസ് ൽ സി ജയിച്ചതെന്ന് പ്ലസ് ടു മാത്സ് ഇൻ്റഗ്രേഷനൊക്കെ ഭയങ്കര സീനാണെങ്കിലും നമ്മൾ അറിയാവുന്ന പോലെ ഒരു വിധത്തിലൊക്കെ എഴുതിന്നല്ലാണ്ട് ബാക്കി പ്രാർത്ഥിച്ചു ദൈവത്തിന് സമർപ്പിച്ചു എഴുതി മാത്സിൻ്റെ പരീക്ഷക്ക് നല്ലോണം പഠിച്ചിട്ട് തന്നെയാണ് പോയത് എസ് എസ് എൽ സിം ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു അന്ന് പഠിക്കണമെന്ന് തോന്നി പഠിച്ചു പണ്ട് മാത്സ് ഏറ്റോം എളുപ്പമായിട്ട് തോന്നി പിന്നുള്ള ഇയറിൽ മാത്സിന് ബെസ് മാത്സിന് ഡിഗ്രി എടുത്ത് പോണോന്നുണ്ടെങ്കിലും ഞാനെടുത്ത കോളേജിൽ മാത്സില്ല അതാണ് ഡിഗ്രി എടുക്കാഞ്ഞത് എനിക്കിപ്പോഴും മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ് കാരണം മാത്സിൻ്റെ ചോദ്യങ്ങളിൽ തന്നെ അതിന് ഉത്തരം കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചിന്തിക്കാം പറ്റും മാത്സിൻ്റെ അവസ്ഥ എന്താന്ന് മനസ്സിലായോ പെട്ടെന്ന് തന്നെ മാത്സ് ക്യാച്ച് അപ്പ് ചെയ്യാൻ പറ്റും ഭയങ്കര രസമാണ് ഇതിൻ്റെ വിഷയം ഭയങ്കര രസമായിട്ടാണ് ഓരോ ചോദ്യങ്ങളും ഇപ്പം ചെയ്യുക അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ചെയ്യാൻ പറ്റും അത്രക്ക് എളുപ്പാണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ പക്ഷേ കുറെയൊക്കെ ഭയങ്കര പാടാട്ടോ ഇൻ്റഗ്രേഷനും ഡിഫറെൻസിയേഷനുമൊക്കെ പക്ഷേ അത് പോകെ പോകെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും അതുകാരണം അത്രയും അടിപൊളിയായിട്ടാണ് നമുക്ക് തരുക അത്